വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രത്തെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടം കാരണം ആ ആട് കാണിക്കുന്ന ഓരോ കുസൃതികളും അല്ലെങ്കിൽ പിന്നെ ഓടി നടന്ന് ആ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് ആടും അവിടെ പ്രവർത്തിക്കുക മുഹമ്മദ് ബഷീറിൻ്റെ മുഹമ്മദ് ബഷീറെന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ആ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ പോലും ഒരു മടിയും കൂടാതെ ചവച്ചിറക്കി കഴിക്കുവാൻ ആ ആട് കാണിക്കുന്ന ഒരു വെപ്രളോം നമുക്ക് കാണേണ്ട ഒന്നു തന്നെയാണ് വളരെ ഭംഗിയായി പാത്തുമ്മയുടെ ആടിനെ ആ കഥാകാരൻ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ആ ആ ഒരു മൃഗത്തെയും അവർ കാണുന്നത് ഒരു ഒരു മനുഷ്യ ജീവിയെന്ന നിലയിൽ തന്നെയാണ് അപ്പം അത് ഓടി നടന്ന് ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായി നടന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ അംഗത്തെ പോലെ കുസൃതി കാണിച്ച് നടക്കുമ്പോൾ ആ പത്തുമ്മയുടെ ആടിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല ഏത് ഏത് സമയത്തും ഏതു മുറിക്കുള്ളിലും ഏത് പ്രതിസന്ധിയിലും കടന്നു ചെല്ലാനുള്ള ആ അതിൻ്റെ കഴിവ് അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തോ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും അതൊക്കെ ആ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ആ വീട്ടിലെ ഒരംഗത്തെ പോലെ അകത്തേയ്ക്കോടി വരുകയും തൻ്റെ സ്വന്തമെന്ന പേരിൽ അല്ലെങ്കിൽ താൻ ആ വീട്ടിലെ അംഗമെന്ന നിലയിൽ പിന്നെ എവിടെ ചെന്നും ഏത് പ്രശ്നങ്ങളിലും തലയിടുന്ന ആ ഒരു സ്വഭാവം അത് എന്നിട്ട് അതവർ കാണിക്കുമ്പോൾ ആ ആട് അതിനെ ആ ആട് അങ്ങനെ ചെയ്യുമ്പോൾ വീട്ടുകാർക്കും ആ ഒരു അവരുടെ ടെൻഷൻ ഇല്ലാതാവുകയാണ് അവരുടെ വിഷമങ്ങൾ ഇല്ലാതാവുകയാണ് തൻ്റെ ഈ ആടെന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരുപാട് കുട്ടികൾ ആ വൈക്കം മുഹമ്മദ് ബഷീറിന് നോവലിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ മക്കളെയൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് പ്രതിനിധീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിലവരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഒരു ദിവസം നമ്മുടെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മ സഹോദരിയുടെ ആണ് ആട് അപ്പം സഹോദരിയുടെ ആട് അദ്ദേഹം വീടിനുള്ളിലേയ്ക്ക് കടന്നു വരുകയും മുഹമ്മദ് ബഷീർ എഴുതി എഴുതാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു നോവലിൻ്റെ ഭാഗങ്ങൾ കടിച്ച് കീറി അത് അകത്താക്കുകയും ചെയ്യുന്ന രസകരമായൊരു സംഭവം ആ അതിൽ വളരെ മനോഹരമായി വിവരിക്കുന്നു അത് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമുക്ക് ഒരു ചിരി തരുന്ന ചിരി വരുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു